ഞാൻ ഉപയോഗിക്കുന്നത് പോക്കോ എം റ്റു പ്രൊ ആണ് അത് എം ഐയുടെ തന്നെ ഒരു മൊബൈൽ ഫോൺ ആണ് എം ഐ വേർഷൻ ആണ് ആൻഡ്രോയ്ഡ് വേർഷൻ വരുന്നത് എനിക്ക് പോസിറ്റിവ് ആയിട്ടുള്ള എക്സ്പീരയൻസ് തോന്നിയിട്ടുള്ളത് വീഡിയോ ക്യാമറയിലെ സ്റ്റബിലിറ്റി ആണ് നല്ല സ്റ്റേബിൾ ആണ് ക്യാമറ അതുപോലെ തന്നെ ചാർജും നന്നായിട്ട് നിൽക്കുന്നുണ്ട് പ്രോസസിംഗ് സ്പീഡ് നന്നായിട്ട് കിട്ടുന്നുണ്ട് അതായത് ഈ ഒരു റേഞ്ചിലുള്ള ബാക്കിയുള്ള ഫോണുകളെ അപേക്ഷിച്ചു നോക്കുമ്പോൾ പ്രോസസിംഗ് ഫീ സ്പീഡ് നന്നായിട്ട് ലഭിക്കുന്നുണ്ട് അതുപോലെ ക്യാമറയുടെ ക്വാളിറ്റി ഫൊട്ടി എയ്റ്റ് എം പി ക്യാം ആണ് വരുന്നത് അതിന് ഫൊട്ടി എയ്റ്റ് എം പി ക്യാമിൻ്റെ ക്വാളിറ്റി തന്നെ ലഭിക്കുന്നുണ്ട് പിന്നെ ചാർജിങ്ങ് വൈസ് നോക്കുവാണെങ്കിൽ തേർട്ടി ത്രീ വാൾട്ടിൻ്റെ ചാർജിങ്ങ് ചാർജർ ആണ് വരുന്നത് പിന്നെ ചാർജിങ്ങ് ടൈം ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഫുൾ ആവാൻ വേണ്ടി എടുക്കാറുണ്ട് അതുപോലെതന്നെ നല്ല ബാക്കപ്പും കിട്ടുന്നുണ്ട് ഒരു ദിവസത്തിൽ കൂടുതലൊക്കെ ചിലപ്പോൾ ബാക്കപ്പ് കിട്ടാറുണ്ട് അത് ഉപയോഗം പോലെ ഇരിക്കും എങ്ങനെയാണെങ്കിലും ഒരു ദിവസത്തിൽ കൂടുതൽ ബാക്കപ്പ് എന്തായാലും കിട്ടും